എൻ്റെ രണ്ട് സ്വന്തക്കാർ പെട്ടന്ന് വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച് പത്ത് പൊറോട്ടായും രണ്ട് ചിക്കൻ കറിയും ഓഡർ ചെയ്തത് നിങ്ങളാ സാധനം ഇവിടെ കൊണ്ടന്ന് തരാതെ തന്നെ ഇപ്പം ഫോണേൽ നിങ്ങൾ സാധനം ഇവിടെ എത്തിച്ചെന്നാണ് കാണിക്കുന്നത് ഇത് നമുക്ക് കിട്ടിയിട്ടും ഇല്ല ഞമ്മളിതിന് മുൻപ് പല പ്രാവശ്യോം നിങ്ങളിവിടുന്ന് സാധനം മേടിച്ചിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ട് വന്ന് തന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് തന്നു എന്ന് കാണിക്കുന്നത് ഇതിപ്പം പൈസായും പോയി നിങ്ങളൊട്ട് സാധനം ഇവിടെ എത്തിച്ചിട്ടുല്ലാ ഇതിപ്പം നമ്മൾ എന്നാ ചെയ്യണം നമ്മളിതിപ്പം ആർക്കാണ് പരാതി കൊടുക്കണ്ടിയതെന്നാണ് അറിയത്തില്ല ഒന്നുകിൽ നിങ്ങളെത്രേം പെട്ടന്നാ നമുക്കാ സാധനം എത്തിച്ച് തരിക നമ്മുടെ സ്വന്തക്കാർ ഇത് കൊണ്ട് വരുവല്ലോന്ന് ഓർത്ത് നമ്മളതവരോടും പറഞ്ഞ് അവരും കാപ്പി കുടിക്കാൻ റെഡി ആയിട്ട് ഇവിടിങ്ങനെ ഇരിക്കുവാ എന്നാണ് ചെയ്യണ്ടിയത് നമ്മൾ ഇത് ഇപ്പം ആരോടാണ് പറയണ്ടത് നിങ്ങളെ ഇപ്പം വിളിച്ചിട്ടാണെങ്കിലോ ഫോണു എടുക്കുന്നില്ല തന്നു തന്നുന്നാ പറയുന്നത് ഇനിയിപ്പം നമ്മൾ അവിടെ എന്നാ ചെയ്യണ്ടിയതെന്നാണ് അപ്പം ആലോചിക്കുന്നത് ഈ പല പ്രാവശ്യം തന്നപ്പഴും പല പ്രാവശ്യം നമ്മൾ അയച്ചപ്പോഴക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ട് വന്ന് തരികേം എടുക്കുവോം ചെയ്തതാണ് ഇന്ന് വരെ നിങ്ങടെ ഭാഗത്തുന്നു ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടു ഇല്ലായിരുന്നു അത് കാരണം ഇത് വന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്